ഞാനിപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഓൺലൈനിൽനിന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം കയറി നോക്കുന്നത് എത്ര പേരിത് വാങ്ങിയിട്ടുണ്ട് അപ്പം അവരുടെ റേറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടാദ്യം നോക്കുക നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു ആദ്യം നല്ല കളറിൽ കണ്ടു അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന ഇഷ്ടത്തിൽ മേടിച്ചു പിന്നീട് നമുക്കത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അതൊന്നിനും കൊള്ളാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റിയെന്നു വരില്ല അപ്പോൾ ആദ്യം അത് എന്തായാലും എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായം എന്താണ് കമൻ്റും കാര്യങ്ങളൊക്ക ഫസ്റ്റ് നോക്കും അതിനു ശേഷമാണ് കളറ് നോക്കുന്നത് കളറ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കളറായില്ലെങ്കിൽ അടുത്ത ബ്രാൻഡ് നോക്കും പിന്നെ സൈസ് കൂടുതലും സാധനങ്ങൾ വാങ്ങുമ്പം വെച്ചാൽ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളും ക്യാഷ് ഓൺ ഡെലിവെറി കിട്ടുന്നതാണ് കൂടുതലായിട്ടും നോക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഓഡറ് ചെയ്തു ഇഷ്ടമുള്ള നിറമാണ് വലിപ്പമാണെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പം നമുക്കത് സൂട്ട് ആകുന്നില്ല സൈസിൽ ചിലപ്പോൾ വ്യത്യാസം വരും കാരണം ഇന്ന് ഒത്തിരി കണക്കിന് ഓഡറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാത്തിലും ചിലപ്പോൾ ഒരേപോലെ പറ്റണമെന്ന് വരില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കും അതുപോലെത്തന്നെ